ഉം ഹലോ നടുവേദനയ്ക്ക് സാധാരണായിട്ട് നമുക്ക് ലേഹ്യങ്ങള് ചിലര് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട് രണ്ട് മാസമായോ ആ അപ്പം സാധാരണ നടുവേദനയ്ക്ക് ചിലപ്പം തിരുമലുകൾ നടക്കുന്നുണ്ട് ഉം അപ്പം അതാണ് പിന്നെ കോസ്റ്റ്ലി ആയിട്ട് അതായത് പൈസ നിങ്ങൾക്ക് ചിലവാക്കാൻ മാത്രം ഉണ്ടോ ഇല്ല അപ്പം നിങ്ങൾക്ക് ഒറ്റമൂലി ആയിരിക്കും കുറച്ചും കൂട നല്ലത് കേട്ടോ അതിൻറ്റെ കൂടെ ശാത്ര പഞ്ചന തൈലമെന്നും പറഞ്ഞൊരു തൈലമുണ്ട് അത് അത് നമുക്ക് ആയുര്വേദിക്ക് നമ്മുടെ കോട്ടക്കയിൽ നിന്ന് അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ആയുര്വേദിക്കിൽ നിന്നും വേണമെങ്കില് തരാം ഉം അത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് തരാം അത് നമ്മുടെ ഈ തേങ്ങായൊക്കെ തേങ്ങയുടെ തൊണ്ടില്ലേ തൊണ്ട് അത് ഒന്ന് ചൂടാക്കിയിട്ട് അതല്ലെങ്കിൽ അത് ചിരട്ട കത്തിച്ചിട്ട് പ്ലാവില എടുക്കണം പ്ലാവില പ്ലാവില എടുത്തിട്ട് അതിൻറ്റെ മുകളില് ഈ തൈലം അങ്ങോട്ട് തൈലം അങ്ങോട്ട് പുരട്ടണം എന്നിട്ട് ഇത് ചൂടോടെ അതായത് ഈ കനല് പുറത്ത് കാണിച്ച് ചൂട് വെച്ച് അത് ആ നടുവിന് അങ്ങോട്ട് തിരുമ്മണം അത് തിരുമ്മ തിരുമുകയൊന്നും വേണ്ട അതിങ്ങനെ വെച്ച് വെച്ച് വെച്ച് കൊടുക്കുക അതൊരു പിന്നെ അതിനിപ്പം ഒരു മുന്നൂറ്റമ്പത് രൂപയായിരിക്കും ആ ഓയില്മെന്റിന് സിഞ്ചാപ്രപഞ്ചനം എന്ന് പറഞ്ഞ രണ്ട് തൈലമാണ് രണ്ടും കൂടെ ചേര്ക്കുക